മലയാള ഭാഷേനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന് ഒന്നു വേറിട്ട് നിർത്തുന്നതു തന്നെ മലയാള ഭാഷയും അതു തന്നിട്ടുള്ള സംസ്കാരവും അതിനോടുള്ള വ്യക്തി വികാസവുമാണ് ഒരു മലയാളിയെ മലയാളത്തോട് എത്രത്തോളം ചേർത്തു നിർത്തുന്നത് ലൈക്ക് നമ്മുടെ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷ ഒരാൾ ചിന്തിക്കുന്നതും ഇപ്പോൾ ഞാൻ തന്നെ ആയാലും ഞാൻ ചിന്തിക്കുന്നതും അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ ഭാഷയിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നതായാലും ഇപ്പം ഇംഗ്ലീഷാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കോളേജിൽ യൂസ് ചെയ്യുന്നത് എന്ന എന്ന് എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യം പഠിക്കാനായാലും മനസ്സിലാക്കാനായാലും ഒക്കെ നമ്മൾ മലയാ മാതൃഭാഷ ആയ മലയാളം തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഈവൻ നമ്മൾ ആദ്യം തൊട്ട് ജനിച്ച അന്നു മുതൽ സംസാരിച്ച് വളരുന്ന ഭാഷ മലയാളമാണ് അപ്പം ഒരു ഞാനെന്ന വ്യക്തിയെ ഡെവലപ്പ് ചെയ്തു കൊണ്ടു വരാൻ അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയെ എവിടെ വളർച്ചയെ എനിക്ക് വളരെ അധികം കാരണമായത് മലയാള ഭാഷയാണ് കാരണം ഈവൻ നമ്മുടെ അമ്മയും അച്ഛനും ആയാൽ പോലും അവർ അവർ വഴക്കു പറയുന്നത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴവർ വഴക്കു പറയുന്നത് എന്തായാലും മാതൃഭാഷയിലായിരിക്കുമല്ലോ നമ്മുടെ പേരൻസ് മാതാപിതാക്കൾ മലയാളികളാകുമ്പോൾ എന്തായാലും അവർ മലയാളത്തിലായിരിക്കും ചീത്ത പറയുന്നത് അങ്ങനെ വെച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ വ്യക്തി വികാസത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പങ്കു വഹിച്ചത് മലയാള ഭാഷയായിരിക്കും ഈവൻ നമ്മളെ ടീച്ചേർസായാലും പഠിപ്പിക്കുന്നതായാലും ടീച്ചേഴ്സ് ഫ്രണ്ട്സ് ആരായാലും നമ്മളെ പഠിപ്പിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ മലയാള ഭാഷയിൽ കൂടെ തന്നെ ആയിരിക്കും ഏതൊക്കെ ഭാഷ ഉണ്ടെന്നു പറഞ്ഞാലും ഒരു ഒരാൾക്ക് അയാളുടെ മാതൃഭാഷയായിരിക്കും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഛെ വ്യക്തി വ്യക്തി വികാസത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റായിട്ട് വരുന്നത്